സാങ്കേതിക വിദ്യ അത് ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ ബാങ്കിങ് സേവങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നത് വച്ചാൽ ഒരുപാട് നമ്മൾ നമ്മുടെ ചുറ്റും കാണുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം എ ടി എമ്മിലാണെങ്കിലും ജിപേ ആണേലും പേറ്റിഎം യൂ പി ഐ എല്ലാം നെറ്റ് ബാങ്കിങ് ഇതെല്ലം ബാങ്കിങ് കുറേ കൂടി ഈസിയർ ആക്കിയേക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ ഈസിയറാക്കി എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ജെനറേഷൻ അതായത് ഫസ്റ്റ് എങ്ങനെ ബാങ്കിങ് ടെക്നൊളജിയുമായിട്ട് ഇൻട്രൊഡ്യൂസ് ആയി എന്നുള്ള ഒരു ഒരു ഐഡിയ ഞാൻ ഇവിടെ പറയാം എ ടി എംസ് ഈ എടീമ്മിനു മുന്നേ അല്ല എടിയമ്മിനു മുന്നേ അല്ല എ റ്റി എം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ യിരുന്നു ടെക്ക്നോളജിയിലോട്ട് അതായത് നമ്മൾക്ക്

വിഡ്രോ ചെയ്യാം നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഇതിനൊന്നും നമുക്ക് വേറെ ഒരു ആളുടെ ഒരു സഹായവും ഇല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യൻ്റെ സമയം നമുക്ക് കൺസ്യൂം ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല അത് സംബന്ധിക്കുന്ന ഭയങ്കര എളുപ്പവും ആയിരുന്നു എളുപ്പവും ആണ് വളരെ ടൈമ് എഫിഷെൻ്റ് ആയ ഒരു കാര്യമാണ് ഇത് അതെ സംബന്ധിച്ചു നമ്മുടെ നേരിട്ട് ഒരു ആളെ കണ്ടു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെ ഡെപ്പോസിറ്റീ ആണെങ്കിലും വിഡ്രോ ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രോസിജേഴ്സിലൂടെ കടന്ന് പോകേണ്ടി വന്ന ഒരു അവസ്ഥ വരാൻ വന്നിട്ടുണ്ട്

അപ്പം നമുക്ക് അപ്പ്ം നമ്മക്ക് വീട്ടിലിരുന്നാണെങ്കിലും ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം ട്രാൻസാക്ഷൻസ് പ്രൊസീഡ് ചെയ്യാം നമുക്ക് ഒരു നമുക്ക് നേരിട്ട് ബാങ്കിൽ പോയി ഇടപെടേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അത് ഒരു വളരെ ഒരു നല്ല ഒരു പോസിറ്റീവ് പോയിൻ്റ് ആണ് പോസിറ്റീവ് കാര്യമാണ് ഈ ടെക്നോളജി ബാങ്കിങ്ങായി വന്ന ഒരു പകരം അതായത് ബാങ്കിങ്ങുമായിട്ട് കൊളാബറേറ്റ് യ്ത് ബാങ്കിങ്ങിൽ വരുത്തിയ ഓരോ മാറ്റങ്ങളിൽ ഏറ്റവും നല്ല സംഭവം ഇതാണ് നമുക്കും വല്ലവരുടെ റ്റൈമ് കം റ്റൈ എഫിഷൈൻ്റാണ് അതായത് അൺവാണ്ടടായിട്ട് അൺ നെസ്സസറിയായിട്ട് നമുക്ക് റ്റൈം നഷ്ടപ്പെടുന്നില്ല അവിടെ അപ്പോൾ അതിരുകൾ ഒരു പോസിറ്റീവ് പോയിൻ്റ് ആണ് പിന്നെ വേറെ ഒരു നല്ല ഒരു പോസിറ്റീവ് പോയിൻ്റ് എന്തെന്ന് വച്ചാൽ നമ്മൾക്ക് നേരിട്ട് ആൾക്കാരെ കണ്ടു ഇടപഴകേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾക്ക് എവിടെ നിണെങ്കിലും പൈസ വിഡ്രോ ചെയ്യാം നമുക്ക് ക്യാഷ് പേ ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ടെക്നോളജി കൊണ്ട് ഒരു നല്ല ഒരു ഗുണം ഇത് ഇതാണ് ഇതിന് അതേ ടെക്നോളജിക്ക് അതിൻ്റേതായ ഒരുപാട് ഡ്രോബാക്സും വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇപ്പം ഈ സെർവറ് ഡൗൺ ആണെങ്കിൽ ഇപ്പം ജിപേ ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി നമ്മടെ സെർവറ് ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കുകാരുടെ ആപ്പുകൾ ഡൗൺ ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ട് നഷ്ടപ്പെടാനും അതിനകത്തുള്ള ഡോക്കുമെൻറ്റ്സും ഡീറ്റെയിൽസും നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അതൊരു പൊതുവെ നോക്കു പൊതുവെ ഒരു വലിയ ഒരു ഡിസഡ്വാൻറ്റേജായിട്ട് കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അത് മറ്റ് നേരിട്ടുള്ള ബാങ്കുകളെ അപേക്ഷിച്ചു നമ്മൾക്ക് നമ്മുടെ ഹോൾ അക്കൗണ്ട് വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഒന്ന് നമ്മുടെ ഇത് ഫ്രീസായാൽ മതി അത് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഫ്രീസായാൽ മതി അപ്പോഴത്തേക്കും എല്ലാം അത്യാവശ്യം ഏത് എല്ലാം നഷ്ട്ടപ്പെടാനുള്ള ഒരു ഒരു ഒരു ഇതിലോട്ടാണ് നമ്മൾ വരുന്നത് അപ്പം അതൊരു വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് പിന്നെ എല്ലാത്തിനും ടെക്നോളജിക്ക് അതിൻ്റേതായ ഒരു ക്രോളുണ്ട് നേട്ടങ്ങൾ ഉണ്ട് അപ്പം നമ്മൾ അത് അനുസരിച്ചു എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ